ഹലോ ആ ഓക്കെ പറഞ്ഞോളൂ മേഡം വയനാട്ടിൽ ഇപ്പം നമുക്ക് പറയാൻ ആണെങ്കിൽ മെയിൻ ആയിട്ട് സീതാദേവി ടെംപിളിൻ്റെ ആണ് മേഡം പറയാൻ ഉള്ളത് അത് വായനാട്ടിൽ ആ പുൽപ്പള്ളിയിൽ ഉള്ളൊരു അമ്പലം ആണത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലം തന്നെയാണ് മേഡം അത് ആ പരിപാടി ഇപ്പോൾ നമുക്ക് ജനുവരിയിലാണ് പ്രോഗ്രാംസ് ഒക്കെ ഉള്ളത് കാരണം അവിടുത്തെ മെയിൻ ഉത്സവം പോലെ ഉള്ളൊരു പരിപാടി അവിടെ വരുന്നത് ജനുവരിയിൽ ആണ് പത്ത് ദിവസം ആണ് ആ പ്രോഗ്രാം നടക്കുന്നത് അപ്പം അതിൽ മൂന്ന് ദിവസം നാല് ദിവസം ഒക്കെ ആയിരിക്കും മെയിൻ ആയിട്ടുള്ള ഡേയ്സ് വരുക

ഡേറ്റ് ജനുവരി ഒരു ഫസ്റ്റ് തൊട്ട് തന്നെ തുടങ്ങും ആ അതിന്റെ പകുതിയോട് കൂടി തന്നെ അത് കഴിയുകയും ചെയ്യും അപ്പം ഒരു നാല് ദിവസം മെയിൻ ആയിട്ട് വരും അപ്പോൾ നാല് ദിവസങ്ങളില മെയിനിൽ ഒരു ദിവസമായിരിക്കും ഏറ്റവും മെയിൻ ആയിട്ട് അവിടെ ഉണ്ടാവുക ഉണ്ട് ഉണ്ട് ഉണ്ട് മേഡം അവിടുത്തെ താലം എന്താണ് പറയുക ഭയങ്കര വലിയ താലം ആണ് ആ ഒരു കുറേ എന്താണ് പറയുക ഒരുപാട് ആൾക്കാരൊക്കെ താലം എടുക്കുന്നൊക്കെ ഉണ്ടാവും പിന്നെ ആന ചെണ്ട പിന്നെ നാദസ്വരം പോലത്തെ സാധനങ്ങൾ തംബോല അങ്ങനത്തെ സാധനങ്ങൾ ഒക്കെ അതിനകത്ത് ഉണ്ടാവും പിന്നെ ഫുഡ് അന്നദാനം ഉണ്ട് മേഡം പക്ഷേ അത് ഉച്ച സമയങ്ങളിലാണ് സാധാരണ ചെയ്യുന്നത് ആ മേഡം വരാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നോ ആ ഉണ്ട് മേഡം വയനാട്ടിൽ ലക്സ് ഇൻ എന്നൊക്കെ പറയുന്ന റിസോർട്ടുകൾ ഒക്കെ അവൈലബിൾ ആണ് റിസോർട്ടിൽ റൂം ഒക്കെ നമുക്ക് വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് തരാൻ കഴിയും ആ ഫുഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന മെനുവിന് അനുസരിച്ച് നമുക്ക് അറേഞ്ച് ചെയ്ത് ചെയ്യാൻ കഴിയും

ആ അറിയിക്കാൻ പറ്റും മേഡം നിങ്ങൾ നമുക്ക് അറേഞ്ച് ചെയ്ത് അത് കറക്റ്റ് ഡേറ്റ് വരുമ്പം നമ്മൾ അത് നിങ്ങളെ അറേഞ്ച് ചെയ്ത് ഞങ്ങൾ കോൾ ചെയ്തോളാം ആ ഓക്കെ ആ ഓക്കെ മേഡം